എനിക്ക് ടാപ്പ് വെള്ളം ലഭിക്കുന്ന ഒരു ആളല്ല എനിക്ക് ശുദ്ധവെള്ളം ലഭിക്കുന്നതാണ് പക്ഷെ അതിന് കുറച്ച് പരിമിതികളുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്ത് വെള്ളം ഇല്ലാതെ ജീവിക്കുന്ന ഒരു അവസ്ഥേനെ പറ്റി നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അപ്പം അങ്ങനെ പറയുന്ന ഒരു കാലത്ത് നമ്മൾ വെള്ളത്തിനെ ആശ്രയിച്ച് കഴിയുമ്പോൾ ടാപ്പ് വെള്ളം ലഭിച്ചാൽ അത് എത്രമാത്രം ഗുണകരമായിരിക്കുമെന്ന് പറഞ്ഞ് അറിയിക്കാൻ പറ്റുമോ എന്നറിയത്തില്ല കാരണം നമുക്ക് എന്തിനും ഏതിനും വെള്ളം ആവശ്യമാണ് ഒരു അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യാൻ മുതൽ നമുക്ക് നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് മുതൽ എല്ലാ കാര്യത്തിനും നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ചെടികൾക്കും എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് അത്യാവശ്യമായിട്ടുള്ള വേണ്ടൊരു കാര്യമാണ് വെള്ളമെന്ന് പറയുന്നത് ഒരു പരിധി വരെ നമുക്ക് ശുദ്ധ ജലം ലഭിച്ചാൽ പോലും നമ്മുടെ വേനൽ കാലത്ത് നമുക്കതിനൊരു പരിമിതിയൊണ്ട് നമുക്ക് ചിലപ്പോൾ വേനൽക്കാലത്ത് നമ്മുടെ കിണറുകളിലെ വെള്ളം വറ്റുന്നു അപ്പം അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ നമുക്ക് വെള്ളമില്ലാതാകുന്ന ഒരു അവസ്ഥ ഉണ്ടായാല് നമുക്ക് ഉള്ള വെള്ളത്തിൻ്റെ ലഭ്യത വളരെയധികം കുറഞ്ഞ് പോകുന്ന ഒരു സമയം നമുക്ക് വരും വേനല്ക്കാലത്ത് അപ്പം അങ്ങനെ ഉള്ള കാലഘട്ടത്തിൽ നമ്മൾ ഒത്തിരി അധികം വെള്ളത്തിനെ വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ടപ്പെടുന്നൊരു സമയമാണ് അത് അപ്പം അങ്ങനെയുള്ളൊരു ടൈം സമയത്ത് നമുക്ക് ടാപ്പ് വെള്ളം ലഭിച്ചാൽ അത് എത്രമാത്രം നല്ലതായിരിക്കുമെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഒന്ന് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കാര്യമായി നടന്നു പോകാനും ഒരു ഒരു വെള്ളമില്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ബുദ്ധിമുട്ടിലാകും നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല നമുക്ക് അടുക്കളയില് ഭക്ഷണം പാകം ചെയ്യാനും നമുക്ക് നമ്മുടെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുവാനോ നമ്മുടെ വീട്ടിലെ ഒരു കാര്യങ്ങളും നടക്കില്ല ആ വെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ പിന്നീട് നമുക്ക് വെള്ളമില്ലാതെ നമുക്കൊരു കാര്യം തന്നെ നടക്കാത്തത് കൊണ്ട് നമുക്ക് ഇനി ടാപ്പ് വെള്ളം ലഭിക്കുകയാണെങ്കിൽ നമ്മുടെ ആ എല്ലാ കാര്യങ്ങളും എല്ലായി എല്ലാ സമയത്തെ പോലെ തന്നെ നടന്ന് പോകുകയും ചെയ്യും നമുക്ക് വേറൊരു ബുദ്ധിമുട്ടും അറിയേണ്ടതായിട്ടില്ല അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോള് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ നടന്നു പോകുന്നത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാ രീതിയിലും നമുക്കതിനെ കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും നമുക്ക് എപ്പോഴും ടാപ്പ് വെള്ളം ലഭിക്കുന്നില്ല അതിനും കുറേ പരിമിതികളുണ്ട് പിന്നെ കിട്ടുന്ന ടാപ്പ് വെള്ളത്തിൻ്റെ ശുദ്ധതയെ പറ്റി നമുക്ക് അത്രയും ഉറപ്പുമില്ല നമുക്ക് നമ്മുടെ വീട്ടിലെ കിണറിലെ വെള്ളം ലഭിക്കുന്നുന്നത് പോലെ നമുക്കത്രയും വിശ്വസിച്ച് നമുക്ക് ടാപ്പ് വെള്ളം ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നിരുന്നാല് പോലും നമുക്കത് തിളപ്പിച്ച് ആറി നമുക്ക് ഉപയോഗിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാണെൻ്റെ വിശ്വാസം അപ്പം ടാപ്പ് വെള്ളം കിട്ടുകയാണെന്നുണ്ടെങ്കില് അത് തിളപ്പിച്ച് അതിനെ നല്ല രീതിയിലുപയോഗിച്ച് നമുക്ക് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കുകയും നമുക്ക് നല്ല രീതിയിലത് നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ദിനചര്യകൾ നീങ്ങുകയും ചെയ്യും വെള്ളമില്ലാത്ത ഒരു അവസ്ഥ വന്നുകഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടിലാകും രാവിലെ മുതൽ രാത്രിയാകുന്നത് വരെയുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങളും ബുദ്ധിമുട്ടിലാവുകയും നമുക്ക് ഒരു രീതിയിലും അതിനെ കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുകയുമില്ല അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇതിനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും അപ്പം ടാപ്പ് വെള്ളം എന്നും ലഭിച്ചാൽ അതിന് ഒരു സ്ഥിരതയുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊന്നിനേയും കുറിച്ചും വ്യാകുലതപ്പെടേണ്ട ഒരു ആവശ്യവും നമുക്ക് വരുന്നില്ല അതുകൊണ്ട് തന്നെ ടാപ്പ് വെള്ളം ലഭിക്കുക എന്നുള്ളത് ഒരു സ്വപ്നമാണ് അത് നമ്മുടെ ജീവിതത്തെ തന്നെ എല്ലാ രീതിയിലും മാറ്റി മറിക്കുന്നാണ് നമ്മുടെ സമയത്തെ നമ്മുടെ സമയത്തെ സൂക്ഷിച്ചു വെക്കാനും നമുക്ക് മറ്റുള്ള കാര്യങ്ങളിൽ കൂടുതൽ സമയം ചെലവഴിക്കാനുമായിട്ട് അങ്ങനെ തന്നെ സാധിക്കും അപ്പം ഒരു ജലം അല്ലെങ്കിൽ ഒരു ടാപ്പ് വെള്ളം എന്ന് ചുമ്മാ പറയുന്നതിലുപരി അത് നമ്മുടെ ജീവിതത്തിനെ എത്ര മാത്രം സ്വാധീനിക്കുന്നു എന്ന് നമ്മൾ ആ ഒരു കാല ഒരു വിഷമഘട്ടത്തിലൂടെ പോയവർക്ക് മാത്രമേ അറിയുകയുള്ളു അതുകൊണ്ട് തന്നെ അത് ഏറ്റവും നല്ല രീതിയിൽ കിട്ടിയാൽ നല്ലതായിരിക്കും പിന്നെ ഉറപ്പ് വരുത്തേണ്ട ഒരു കാര്യം വെള്ളത്തിൽ കൂടിയൊക്കെ ഒത്തിരി അസുഖങ്ങൾ പകരുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ടാപ്പ് വെള്ളം അത്രയും ശുദ്ധതയുള്ളതാണ് എന്ന് ഉറപ്പ് വരുത്തുക ഇനി കൊടുക്കുന്ന ടാപ്പു വെള്ളത്തേക്കാളൊരു നമുക്ക് ലഭിക്കുന്ന ടാപ്പു വെള്ളത്തെ നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലുമുണ്ട് കാര്യം നമ്മളതിന് അനാവശ്യമായി കളയാതെ ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചുമ്മാ ടാപ്പ് തുറന്ന് വെള്ളം കളയാതെ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക കാരണം വെള്ളം ജലം അമുല്യമാണെന്നെല്ലാം നമുക്കറിയാം ഈ ജലം കിട്ടാത്ത ഒത്തിരി ആളുകളും നമ്മുടെ നാട്ടിലുണ്ട് അപ്പം അവരെ എല്ലാം ഓർത്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന സ്രോതസ്സിൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ജലസ്രോതസിൽ ഇതിന് നമ്മളേറ്റവും ഉപകാരപ്രദമായി ഉപകരിക്കുക അല്ലെങ്കിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്കതിനെ എത്ര മാത്രം ഉപയോഗിക്കാൻ പറ്റുന്നോ അല്ലെങ്കിൽ എത്ര മാത്രം അതിന് വേണ്ടി നമ്മൾ എഫേർട്ട് എടുക്കുന്നു എന്നുള്ളത് ഒരു വലിയ ഒരു കാര്യമായി തന്നെ ഞാൻ കരുതുന്നു